എൻ്റെ വീട്ടിലൊരുപാട് ഔഷധച്ചെടികളുണ്ട് ഒരുപാടെന്നു പറയാൻപറ്റില്ല പക്ഷേ എന്നാൽ പോലും എൻ്റെ വീട്ടിൽ ആര്യ വേപ്പ് മരമുണ്ട് തുളസി ചെടികളു തുളസി ചെടികളുണ്ട് പനികൂർക്കയുണ്ട് മുയൽ ചെവിയുണ്ട് പിന്നെ ആ ആടലോടകമുണ്ട് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട തരത്തിലുള്ള എല്ലാ ഔഷധച്ചെടികളും എൻ്റെ വീട്ടിലുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ ഈ ഔഷധങ്ങളൊക്കെ നല്ലതാണ് ച്ച വളരെ അധികം എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണിപ്പം നമ്മുക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻ്റിബയോട്ട്ക്സെടുക്കും എടുക്കുന്നത് നല്ല എടുക്കുന്നത് ഒരു രീതിയിൽ നല്ലതാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കത് ഇപ്പം നമ്മളൗഷധച്ചെടികൾ കഴിച്ചു മാറ്റാൻ നിൽക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു ടൈമെടുക്കും ആൻ്റിബയോട്ടിക്ക് വൺ ഡേ ഒരു ടു ഡേയ്സും തന്നെ നമ്മുടസുഖങ്ങളും മാറും പക്ഷേ ഔഷധച്ചെടി കുറച്ചും കൂടി എഫ്ഫക്റ്റൊണ്ടെന്നാണെനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ തുളസി ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ മുഖത്തിലെ എന്തെങ്കിലും ഫേസ് ക്രീംമൊക്കെ ഇടണെക്കാളും കുറച്ചും കൂടി നല്ലത് നാച്ചുറലായിട്ടുള്ള കാര്യേപ്പളും പച്ചമഞ്ഞളരച്ചിടുന്നതൊക്കെ നമ്മുടെ ഫേസിന് വളരെ ഗ്ലോ തരുന്ന അല്ലെങ്കിൽ നം അത് അത് കുറച്ചും കൂടി ഹെൽത്തിയാണ് ഒട്ടും ആർട്ടിഫിഷ്യലിറ്റി ഇല്ല അതിൽ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രകൃതിദത്തമായ കാര്യങ്ങളല്ലെങ്കിൽ ഔഷധച്ചെടികളുപയോഗിക്കുന്നോട് ഞാൻ വളരെയധികം യോജിക്കുന്നൊരാളാണ് നമുക്ക് പനി വന്നാലോ ജലദോഷം വന്നാലോ നമ്മൾ പനികൂർക്കയില ഉപയോഗിക്കുന്നതും തുളസി ചെടി തുളസിയുടെ നീര് കുടിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് നമ്മുടെ നമുക്കൊരുപാട് കെമിക്കൽസ് നമ്മുടെ അകത്തേക്ക് പോകില്ല വളരെ നാച്ചുറലായിട്ടുള്ള സസ്യങ്ങളായതു കൊണ്ടു തന്നെ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടാണത് മാറുക